എന്നെ സംബദ്ധിച്ച് നോക്കുമ്പോൾ ഞാൻ ആ എടുക്കുന്ന കൂടുതൽ ചിത്രങ്ങളും ആ ഒരോർമ്മകളില് സൂക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളായിരിക്കും ലൈക്ക് എന്തെങ്കിലും പരിപാടികൾ എവിടെ നടക്കുവാണെങ്കിലും ഇപ്പം കോളേജിലാണെങ്കിലും വീട്ടിലാണെങ്കിലും നടക്കുന്ന എന്തെങ്കിലും വളരെ മനോഹരമായ അല്ലെങ്കിൽ വളരേ മനസ്സിൽ തട്ടുന്ന രീതിയിൽ ഉള്ള എന്തെങ്കിലും ഒരു എന്തെങ്കിലും ഒരു സംഭവങ്ങളൊക്കെ ആയിരിക്കും നമ്മള് നമ്മളല്ല ഞാന് ഫോണിൽ ഫോണിൽ അല്ലെങ്കിൽ ക്യാമറയില് എടുക്കാൻ ശ്രമിക്കുന്നത് ഇപ്പോൾ പിന്നെ ഞാന് ഏറ്റവും കൂടുതല് നോക്കുന്നത് എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതല് ഫോട്ടൊ എടുത്തിട്ടുണ്ടാവുക അല്ലെങ്കിൽ ചിത്രം പകർത്തിയിട്ടുണ്ടാവുക ഈ പ്രകൃതിയുടെ ആയിരിക്കും ലൈക് നല്ല മലങ് മലനിരകളും പാടങ്ങളും പച്ചപ്പും ഹരിതാപയും സൂര്യനും മേഘവും ഒക്കെ ആയിരിക്കും ഞാൻ കൂടുതല് പിന്നെ എടുത്തിട്ടുണ്ടാവുന്ന കാര്യങ്ങള് അല്ലെങ്കിൽ ഇപ്പോൾ പുതിയ തലമുറക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണല്ലൊ സെൽഫി സെൽഫികളായിരിക്കും ഞാൻ പിന്നെ മൂന്നാമത് നോക്കി കഴിഞ്ഞാൽ സെൽഫികളായിരിക്കും എന്റെ എന്റെ മൊബൈൽഫോണിലേറ്റവും കൂടുതൽ ഞാൻ പകർത്തിയിട്ടുണ്ടാവുക അപ്പോൾ ഏറ്റവും പ്രിയപ്പെട്ട ഓർമ്മകൾ എന്നന്നേക്കുമായി സൂഷിച്ച് വയ്ക്കാന് പറ്റുന്ന ഒരു മാർഗ്ഗവുമാണ് നമ്മുടെ ക്യാമറകളും അത്പോലെ തന്നെ ഞാൻ എടുക്കുന്ന ഫോട്ടോകളും